വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുന്ന ലോണാണ് ഇത് പണ്ടത്തെ കാലങ്ങളിലൊക്കെ ആണെങ്കില് എന്നാ നമുക്ക് സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിന് അധികം എന്നാ എന്നാ പൈസയുടെ ആവശ്യം വരുന്നില്ല ഇന്ന് ഈ ഈ കാലഘട്ടത്തില് എല്ലാവരും ഒരുപാട് കുട്ടികള് വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കുകയും അതവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്നാ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടിപ്പം എല്ലാ എല്ലാ ബാങ്കുകളും തന്നെ വിദ്യാഭ്യാസത്തിനുള്ള ലോണുകൾ ലഭ്യമാണ് ലോണുകൾ കിട്ടുന്നതാണ് അ ചെറിയ പലിശ മേഖലയിലൊക്കെ നമുക്ക് ലോണുകൾ ലഭ്യമാണ് അതായത് ഇപ്പോളത്തെ വിവിധ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് എന്നാ അതായത് നേഴ്സിംഗ് പോലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്കൊക്കെ ലോണ് ലോണുകളൊക്കെ എടുത്താണ് കുട്ടികള് പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോയി അവരുടെ പഠന നിലവാരമൊക്കെ മെച്ചപ്പെടുന്നതിന് വേണ്ടി ഈ ലോണുകളെല്ലാം ആ കുട്ടികൾക്കും പേരൻസിനൊക്കെ വളരേ സഹായകരമാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് രാജ്യത്താണെങ്കില് വിദ്യാഭ്യാസത്തിനധികം എന്നാ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിന് അധിക എന്നാ പൈസയുടെയൊന്നും ആവശ്യം ഇല്ല എല്ലാ സ്കൂളുകളിലും അത്യാവശ്യം സൗജന്യ വിദ്യാഭ്യാസങ്ങളൊക്ക തന്നെയാണ് കുഞ്ഞിന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് അത് എന്നാല് അവരുടെ കുഞ്ഞിൻ്റ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് ഈ പുറത്ത് യു കെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം എന്നാ ഉയർന്ന ഫീസ് നിരക്കില് വേണോ ഫീസ് കൊടുത്ത് വേണ അവർക്കൊക്കെ പഠിക്കുവാണ് അത് കാരണം അവർക്ക് നല്ല രീതീലിതെല്ലോ പഠനത്തില് മികവ് കൈവരിക്കാൻ വേണ്ടി അവർക്ക് ലോണെടുത്ത് വിദ്യഭ്യാസ വായ്പ എടുത്തവർക്ക് പുറത്ത് പോകേണ്ടി വരുന്നു നല്ല പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പുറത്തൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് നല്ല രീതിയിൽ എന്നാ നല്ല നല്ല പൈസയുടെ ആവശ്യം വരുന്നുണ്ട് അതിന് വേണ്ടി അ വിദ്യാഭ്യാസ ലോണെടുത്ത് എടുക്കുകയും അതിനുള്ള പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അതിന് കുഞ്ഞ് കുട്ടികളെ സഹായിക്കുകയും ചെയ്യുന്നു പിന്നെ യു കെ കാനഡ അത്പോലെ വിദേശ രാജ്യം നല്ല പഠനങ്ങളായി ഇപ്പോൾ ഉയർന്ന ഫീസുകൾ ഒക്കെയാണ് അവിടെ ഉള്ളത് നമ്മുടെ രാജ്യങ്ങളിലെ പോലെ രാജ്യത്ത് രാജ്യത്തേത് നമ്മുടെ രാജ്യങ്ങൾളുണ്ട് ഇങ്ങനെ ഗൾഫിലുണ്ട് ഫീസ് അടുത്തുള്ള പഠനം പഠനം അതിന് വേണ്ടി എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ഞാ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് വിദ്യാഭ്യാസ ലോണ് സഹായകമാകുന്നത് എന്തിന് വിദ്യാഭ്യാസ ലോണടച്ചെൻ്റെ ബ്രദറ് ഒരാളിങ്ങനെ വിദ്യാഭ്യാസ ലോണെടുത്ത് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കുകയും അദ്ദേഹം യുകെലേക്ക് പോകുകയും ഉന്നത നിലവാരത്തിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയും നല്ലൊര് ജീവിതകാലം മെച്ചപ്പെടുത്തുന്നതിന് അതിന് അവര് സഹായിച്ചിട്ടുണ്ട് പിന്നീട് എന്നാ ഇപ്പം സമ്പാദിക്കുന്ന കാശ് മൂല അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് സഹായകരമായിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ ലോണെടുക്കുകയോ ഞങ്ങള് പോയ അവനിവിടുന്ന് പോയി യു കെല് പോയി യു കെല് പഠിച്ച് ആ സാഹചര്യ അതിൽ ആ പൈസയിൽ നിന്നല്ലാണ്ട് എന്നാ ജോലി നേടിയ പൈസയിൽ നിന്ന് ഈ ലോണടച്ച് തീർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്

സഹായകരമാകുന്നുണ്ട്